ഞാൻ ഞങ്ങളൊക്കെ ജനിച്ചത് മുതൽ എൻ്റെ വീട്ടിൽ അത്യാവശ്യം ഇലക്ട്രിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനുള്ളപ്പോഴേ മിക്സർ ഗ്രൈൻ്റർ ഗ്യാസ് സിലിണ്ടർ അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓവനൊന്നും ഇപ്പോഴും ഇല്ല വീട്ടിൽ ഇപ്പോൾ ഓവൻ അതുപോലെ നമ്മുടെ ബാത്ത് റൂമിൽ ചൂടാക്കുന്ന ഹീറ്റർ അങ്ങനത്തെ അങ്ങനത്തെ ഇലക്ട്രിക്ക് സാധനങ്ങളൊന്നും വീട്ടിലില്ല പിന്നെ ആദ്യം നമ്മൾ കൂടിയ കൂടിയ വീട്ടിൽ കൂടിയ സമയത്ത് ഈ പൈപ്പിൽ മോട്ടറൊന്നും ഇല്ലായിരുന്നു പിന്നെ പൈപ്പ് മോട്ടറിൽ വെള്ളമെ ടുക്കുന്നൊരു സംവിധാനമൊന്നും ഇല്ലായിരുന്നു നമ്മളെ കിണറ്റിൽ നിന്നുതന്നെ കോരിയായിരുന്നു കുറച്ച് കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പം മോട്ടറൊക്കെ വച്ച് ഒരു കൊഴപ്പോവും ഒന്നും ഇല്ല എങ്കിൽപ്പോലും നമ്മൾ ഒരു കറണ്ട് പോവുമ്പോഴേക്കും മോട്ടറിൽ വെള്ളമില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമൊരു ബുദ്ധിമുട്ടല്ലേ അനുഭവപ്പെടുന്നത് അപ്പം അതൊരു നല്ല മാറ്റമുണ്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചു ശീലമായൊരു സംഭവം ഒരു സംഗതി പിന്നീട് നമുക്ക് ഇപ്പോൾ ഇല്ലാതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഹീറ്ററൊന്നു ഹീറ്ററില്ല പിന്നെ ഗ്രൈൻ്റർ ഇപ്പം അടുത്താണ് വന്നത് ഗ്രൈൻ്ററ് ഇപ്പം ഉണ്ട് പക്ഷെങ്കിൽ മുമ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മിക്സിയിലൊക്കെ കുറഞ്ഞ അളവിലല്ലേ പൊടിക്കാനും അരിയൊക്കെ പൊടിക്കാനും അരക്കാനും ഒക്കെ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെ ഗ്രൈൻൻ്റർ വന്നപ്പോൾ നല്ല എളുപ്പത്തിൽ സാധനങ്ങളൊക്കെ പൊടിക്കാനൊക്കെ പറ്റുന്നുണ്ട്